ഹലോ ആ ഇറച്ചിക്കടയാണോ ഇന്ന് എന്നത്തിനെയാണ് വെട്ടുന്നത് പോത്താണോ കാളയണോ ആടുണ്ടോ ആ പന്നിയേയോ പോർക്ക് എന്നാ വില ആഹാ ഞങ്ങളുടെ വിടെ മൂന്നുറ് രൂപ ഉള്ളു അല്ലോ നിങ്ങൾ അറുപത് രൂപ കൂടുതലാണോ ഒരു കിലോയ്ക്ക് ആ പത്ത് കിലോ ഒന്നിച്ചെടുത്താലോ കുറയുമോ മൂന്നൂറ്റി ഇരുപതിനെങ്കിലും എനിക്ക് തരുമോ ഇല്ല പത്ത് കിലോ ഒന്നിച്ചെടുക്കാം ഇത് ഒരു ഈ ഒരു മൂന്നുറ്റി അറുപത് കുറയുന്നില്ല അപ്പോൾ പത്ത് കിലോയും നുറുക്കിത്തരുമോ കുറച്ച് എല്ലും എല്ലും നെയ്യുമില്ലാതെ നുറുക്കിത്തരുമോ പിന്നെ അതേ വീട്ടിൽ എത്തിക്കാമോ ഞങ്ങൾ ഹോട്ടലിലേക്കുള്ള ആവിശ്യങ്ങളാണ് പത്ത് കിലോ ദിവസവും വേണം അപ്പം എന്തെങ്കിലുമൊക്കെ കണ്ണുമടച്ച് ചെയ്യണം ഇപ്പം ആ അപ്പം പിന്നേ നല്ല നല്ല കഷ്ണം തന്നെ തരണം കുടലും കഴുത്തും ഒക്കെ ഒന്ന് ഒഴിവാക്കണം പകുതിയൊക്കെ വെട്ടിയിടുമല്ലോ കിഡ്ണി വേണ്ട കരൾ കരൾ ചേർക്കരുത് ഇറച്ചി നല്ല ഇറച്ചിയാണ് ഇറച്ചി തന്നെ ആണെങ്കിൽ പത്ത് കിലോ വീതം ദിവസവുമെടുക്കാം പത്ത് കിലോ പത്ത് പത്ത് അതായത് പത്ത് കിലോയാണ് വേണ്ടത് അല്ലാതെ രണ്ടും മൂന്നും കിലോ അല്ല അല്ല പിന്നെ പത്ത് കിലോ ആ പതിനഞ്ച് കിലോ ആണെങ്കിലോ ഒന്നും കിഡ്നിയും കരളും പതപ്പെന്നും ചേർക്കാതെ പതിനഞ്ച് കിലോ കൃത്യം ഇറച്ചി തന്നെ വേണം ആ കൊണ്ടുത്തരികയും വേണം കൊണ്ട് തരുന്നതിന് ചാർജൊന്നും ചോദിക്കല്ലേ ആണോ ഉം തൂക്കി വരുന്നത് പിന്നെ ഇന്ന് സാമ്പിളായിട്ട് പത്ത് കിലോ കൊടുത്ത് വിട്ടാൽ മതി അതെ നല്ലപോലെ ആ നുറുക്കി നുറുക്കിത്തരണം അതിൻ്റെ പത്തളേം നൈയ്യുമെല്ലാം മാറ്റി ഇറച്ചി തന്നെ ആയിരിക്കണം ആ അങ്ങനെ ഉണ്ടെങ്കിലേ നാളെ മുതൽ പതിനഞ്ച് കിലോ എടുക്കാം ഹോട്ടലിലേ ആവിശ്യത്തിനാണ് ഒരു മൂന്ന് നാല് കിലോ പന്നി വേണം പന്നിക്ക് എന്നാ വില പക്ഷേ അത് നെയ്യ് ഇല്ലാതെ ഇറച്ചി തന്നെ തരുമോ പുറം തൊലിയില്ലാതെ അത് കഴിവതും അല്ല ആ ആ അതേ ശീമപ്പന്നി ആവുമ്പോഴത്തേക്ക് ഒരുപാട് നൈയ്യും തൊലി ഒക്കെ വരും അത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സൊക്കെ കഴിക്കാതെ വരും

ആട് കിട്ടോ ആടിൻ്റെ ഇറച്ചി ഞങ്ങൾക്ക് ആട്ടിറച്ചി വേണമായിരുന്നു അഞ്ച് കിലോ ആട് ആട് ആഴ്ച്ചയിൽ ആണെങ്കിൽ ആഴ്ചയിൽ അഞ്ച് കിലോ മതി എല്ലാ ഞാറാഴ്ചയും അഞ്ച് കിലോ വീതം വേണം ആട് അഞ്ച് കിലോ തരുമോ ആടിന് എന്നാ വിലയാണ് ആട്ടിറച്ചിക്ക് എണ്ണൂറോ ആ ആടിൻ്റെ അത് ആ ഈ എണ്ണൂറ് രൂപ ആ ശരി എങ്കിൽ നാളെ പറയാം ആ പോത്ത് എല്ലാ എല്ലാ ദിവസവും പതിനഞ്ച് കിലോ പോത്ത് എടുക്കും ബാക്കി ആടിൻ്റെ കാര്യം പന്നീട് പിന്നെ പറയാം ശരി എന്നാൽ നിർത്തട്ടേ